എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മന്തിയാണ് ചിക്കൻ മന്തി അത് ഈയിടെയായി ഈയിടെയായി ഒരു മൂന്ന് നാല് വർഷം ആയിട്ടുള്ളൂ മന്തി എന്ന ഒരു വിഭവം വന്നിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എനിക്ക് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഫുഡ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു റസ്റ്റ് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റസ്റ്റോറന്റ് ഉണ്ട് അവിടെ പോയി കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം അവിടുത്തെ മന്തി ഭയങ്കര ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ പോയി പിന്നെ എൻ്റെ വീട്ടിലും ഉണ്ടാക്കും എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരും ആ ആ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ വീട്ടിലിരുന്നും കഴിക്കും വീട്ടിൽ ഇരുന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ അത് ഉച്ചയ്ക്കും രാത്രിയും ബാക്കി ഉണ്ടെങ്കിലും ഞാൻ അത് പിറ്റേന്ന് രാവിലെ അത് എ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് മന്തി